തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് മണിപ്പൂരിലെ കലാപം മെയ്തി കുക്കിയെ വർഗ്ഗക്കാർ തമ്മിലുള്ള ഒരു കലാപമാണിത് തീർച്ചയായും ഇത് കുറേക്കാലമായി കുറേ മാസങ്ങളായി നടക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ആരും അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ല പക്ഷേ ഒരു കലാപത്തിന്റെ എല്ലാം ഇരകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും വൃദ്ധരായ ആളുകളും ആണ് അങ്ങനെ എത്രയോ ആളുകൾ ആ കലാപത്തിലൂടെ മരിച്ചിരിക്കുന്നു ഒരുപാട് പ്രതിഷേധങ്ങളും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളും മറ്റു കാര്യങ്ങളാണ് അവിടെ കേൾക്കുന്നത് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അപമാനം അല്ലെങ്കിൽ എന്ന് പറയാവുന്നതാണ് കാരണം സ്ത്രീകൾ അത്ര സുരക്ഷിതരല്ല എന്ന് പറയുന്നത് മണിപ്പൂരിലാണ് കൂടുതലും അതിനെ മണിപ്പൂർ ആണ് കൂടുതലും അതിനെ പ്രാപ്ത്യമായ ഒരു സ്ഥലം അത്രയും സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമാണത് ഒരുപാട് പേർ ഈ കലാപത്തിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അക്രമാസക്തരായ നാട്ടുകാർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ